എനിക്ക് ഈയിടെയായിട്ട് ഏറ്റവും താല്പര്യമുള്ള ഒരു ബൈക്കിംഗ് ലോകത്തെ ട്രെൻഡ് എന്നു വച്ചുകഴിഞ്ഞാല് അഡ്വഞ്ചർ ബൈക്കിംഗുകളിലോടാണ് എനിക്ക് ഈയിടെയായിട്ട് താല്പര്യം കൂടുതല് അഡ്വഞ്ചർ ബൈക്കുകളില്വച്ച് തന്നെ എനിക്ക് ഒരു ഈ അടുത്തുവരെ എനിക്കു വളരെയധികം ഇഷ്ടമുള്ള ഒരു ബൈക്കായിരുന്നു റോയൽ എൻഫീൽഡ് ഹിമാലയൻ പക്ഷേ അതിനുശേഷം ഈയിടെയായി എൻ്റെ റീൽസ് ഫീഡിലും മറ്റുമൊക്കെ യൂ ട്യൂബ് ഫീഡിലുമൊക്കെ വരുന്ന അഡ്വഞ്ചർ ബൈക്കിങ്ങിൻ്റെ വീഡിയോസിനൊക്കെ നിരീക്ഷിച്ചപ്പോൾ എനിക്കു മനസ്സിലായത് ഹിമാലയനേക്കാൾ ഓഫ് റോഡ് ട്രാക്കിൽ വളരെ പ്രാവർത്തികമായൊരു ബൈക്ക് ആണ് ഹീറോയുടെ എക്സ്പൾസ് എന്നത് മാത്രമല്ല എക്സ്പള്സ് മാത്രമല്ല ഹിമാലയനേക്കാൾ വളരെ മികച്ച രീതിയിലാണ് മറ്റ് അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ പെർഫോം ചെയ്യുന്നത് ഉദാഹരണത്തിന് കെ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ ബൈക്കുകളൊക്കെ ഹിമാലയനേക്കാൾ മികച്ച പെർഫോമൻസാണ് ഓഫ് റോഡ് ട്രാാക്കുകളില് കാഴ്ചവയ്ക്കുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് എൻ്റെ ഹിമാലയനോടുള്ളൊരു താല്പര്യത്തിനു ചെറുതായിട്ടു മങ്ങലേറ്റിട്ടുണ്ട് എങ്കിലും ഞാനിനി ഒരു ബൈക്ക് എടുക്കുകയാണെങ്കില് കൂടുതല് ആലോചിച്ചുതന്നെ ആയിരിക്കും ഞാൻ തീരുമാനം എടുക്കുക പിന്നീട് റൂട്ടുകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരാഗ്രഹമെന്നുള്ളത് ബൈക്കെടുത്തതിിനു ശേഷം ഒരു ഹിമാലയൻ യാത്ര പോകണമെന്നാണ് കാരണം ഇന്ത്യയുടെ ഒരു ഇന്ത്യയിലൊരു ലോകാത്ഭുതമാണല്ലോ ലോകത്ത് ഏറ്റവും വലിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റുള്ള സ്ഥിതി ചെയ്യുന്നൊരു മലനിരയാണ് ഹിമാലയൻ മലനിര അതുകൊണ്ടുതന്നെ അത് ഇന്ത്യയിലായിട്ടുകൂടി സ്ഥിതി ചെയ്തിട്ടുകൂടി നമ്മളതു പോയി സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അതു വല്ലാത്തൊരു വല്ലാത്തൊരു നഷ്ടം തന്നെയായിരിക്കും മാത്രവുമല്ല ഈ ഒരു ബൈക്കർ എന്നുള്ള നിലയ്ക്കു വല്ലാത്തൊരു എക്സ്പീരിയൻസും ആയിരിക്കും അത് പിന്നീട് എനിക്ക് താല്പര്യമുള്ളതെന്നുവച്ചാല് ഒരു ഓൾ ഇന്ത്യ യാത്രയാണ് ഓൾ ഇന്ത്യ യാത്രയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുവച്ചാല് ഇന്ത്യയില് വളരെ വൈവിധ്യമാര്ന്നൊരു രാജ്യമാണ് ഇന്ത്യ ഒരു ഇന്ത്യൻ പൗരനായിട്ടുകൂടി ആ വൈവിധ്യം അനുഭവിച്ചു നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കില് അതും ഒരു വളരെ ഒരു വലിയ നഷ്ടവും അപമാനവുമായിരിക്കും എന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടുതന്നെ ബൈക്കെടുത്തതിനുശേഷം ഒരു ഹിമാലയൻ യാത്രയും ഒരു ഓള് ഇന്ത്യ യാത്രയുമായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓൾ ഇന്ത്യ യാത്രയിലൂടെ നമുക്ക് ഈ വൈവിധ്യങ്ങൾ അറിയുകയെന്നു മാത്രമല്ല വളരെ വൈവിധ്യമാർന്ന ആചാരങ്ങളും ആഹാര രീതികളും മറ്റു പല രീതികളും നമുക്കു നേരിട്ടുകണ്ടു പരിചയപ്പെടാനും ആളുകളുമായി സംവദിക്കാനും ആകുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം